ഞങ്ങളുടെ സമൂഹത്തിലെ യുവാക്കളെ പാരമ്പര്യ നൃത്ത രീതികൾ പഠിക്കാൻ ഒരുപാട് പേര് താൽപ്പര്യം കാണിക്കുന്നുണ്ട് അവർ പഠിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവർ അതിനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു അവർ അതിൽ തന്നെ ഉറച്ച് നിൽക്കുന്ന കഴിയുന്ന ഒരുപാട് കലാകാരന്മാരും നമ്മുടെ ചുറ്റിനുമുണ്ട് അവർക്ക് ഒക്കെ അതിലൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹനം കിട്ടുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് പാരമ്പര്യ നൃത്തരീതികൾ കുച്ചിപ്പുടി മോഹിനിയാട്ടം കഥകളി എന്നിവ എല്ലാം അഭ്യസിക്കുന്ന യുവതി യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അവർ അതിൽ ഒക്കെ പ്രഗത്ഭർ ആയവരും നല്ല രീതിയിൽ മറ്റുള്ളവരെ ട്രെയിനിംഗ് ചെയ്യിച്ചെടുക്കുന്നവരും സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ച് അതിൽ പെർഫോം ചെയ്യുന്നത് എന്ന ഒരുപാട് കലാകാരന്മാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് പുതിയ കാലഘട്ടത്തെയേക്കാൾ കൂടുതൽ ഇപ്പം സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ കണ്ടു വരുന്നുണ്ട്